ഞാന് പൊതുവേ എല്ലാത്തരത്തിലുള്ള കളറുകളും ഉപയോഗിക്കും എന്നാൽ കൂടുതലായിട്ട് എനിക്കിഷ്ടവുള്ള ചില കളറുകളാണ് ഞാന് ഉപയോഗിക്കാറുള്ളത് അതിൽ കരിനീല കളറ് എന്റെ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കളറാണ് അതുപോലെത്തന്നെ കറുപ്പ് നിറം അത്പോലുള്ള കളറുകളെല്ലാം കുറച്ച് ഡാര്ക്കായിട്ടുള്ള കളറുകളൊക്കെ വളരെയധികം ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഇഷ്ടംന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എന്റെ ഡ്രെസ്സിന്റെ കളറായിട്ട് വരുമ്പൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പിന്നെ വീടിനാണെങ്കിൽ വീടിനൊക്കെയാണ് വീട് അതുപോലെത്തന്നെ നമ്മുടെ വണ്ടി അങ്ങനെയെക്കെ ആണെങ്കിൽ ഞാന് കുറച്ചും കൂടി വേറെ വേറെ ഒരു രീതിയിലുള്ള കുറച്ചുംങ്കൂടെ ഓറഞ്ച് മഞ്ഞ അങ്ങനത്തെ കളറുകളൊക്കെയാണ് ഞാന് ചൂസ് ചെയ്യാറുള്ളത് എന്റെ എനിക്കൊരു വണ്ടിയുണ്ട് വണ്ടിക്ക് ഞാന് പിങ്ക് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഡ്രെസ്സിനൊക്കെയാണെങ്കിൽ ഞാന് പറഞ്ഞപോലെ നേരത്തെ പറഞ്ഞപോലെ കരിനീല അല്ലെങ്കില് മെറൂണ് കളറ് അല്ലെങ്കില് കറുപ്പ് അങ്ങനത്തെ ഒരു കൈന്റ് ഓഫ് കളേര്സാണ് ഞാന് കൂടുതൽ യൂസ് ചെയ്യാറ്